ഹലോ നിങ്ങളുടെ അഞ്ചൽ ഫുഡ് പ്രൊഡക്ടല്ലേ ഞങ്ങളുടെ വീട്ടിലിന്ന് ഉച്ച കഴിഞ്ഞൊരു ഇരുന്നൂറ് പേരുടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി സമയത്ത് ഒരു വൈകുന്നേരം നാലുമണി ആകുമ്പോഴത്തിനും എത്തിക്കാൻ സാധിക്കുമോ ഫ്രഷായിരിക്കണം ചൂടോടെ വേണം കൃത്യമായി എത്തിക്കാൻ സാധിക്കുമോ എത്ര രൂപ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റും നൂറ്റിയെമ്പത് നൂറ്റിയെമ്പത് അൽപ്പം കൂടുതലല്ലേ ഇത്രയും ബൾക്ക് ഓഡറുള്ളതുകൊണ്ട് കുറച്ചുംകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഓഫാറോ എന്തെങ്കിലും തരാൻ സാധിക്കുമോ നിങ്ങൾക്ക് നൂറ്റി അൻപത് സർവീസ് ഉൾപ്പെടെ

നിങ്ങളുടെ സേവനത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു കൃത്യ സമയത്ത് എത്തിക്കുക